ആ എന്നായിരുന്നു ഇത് എന്നായിരുന്നു റോയൽ ടൂർ കമ്പനിയല്ലേ ആ ആ ഞാൻ നിവിൻ ഞാനാണെങ്കിൽ എന്നായിരുന്നു കേരളത്തിൽ തന്നെ ജനിച്ച ആളാണ് പക്ഷേ കുറച്ചുനാൾ എൻ്റെ ജീവിതം ശിഷ്ഠകാല ജീവിതം എല്ലാം ഞാൻ രാജസ്ഥാനിലാണ് ചെലവഴിച്ചത് അപ്പം എന്തായിരുന്നു ഞാൻ ഫാമിലിയായിട്ട് ഇനി അവിടെ ആയിരുന്നു അപ്പം ഞാനെൻ്റെ ജോലിയിടെയിൽനിന്ന് റിട്ടേർ ആയി ഞാൻ ഇപ്പം കേരളത്തിലേക്ക് വന്നതാണ് പക്ഷെ വന്നാൽ പോലും കേരളത്തിൽ ഞാൻ ഒരാഴ്ചയെ കാണൂള്ളൂ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മറ്റ് കുറച്ച് ഫാമിലി മെമ്പേഴ്സ് എല്ലാം തമിഴ്നാട്ടിൽ ഒക്കെയാണ് അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോവും അപ്പം ഞാൻ വിളിച്ചത് എനിക്ക് നിവിൻ എനിക്ക് ആണെങ്കിൽ അതായത് എന്നെ ഒന്ന് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ കുറച്ച് സ്ഥലത്ത് നമ്മൾ എല്ലാം പോയിൻറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിലൊന്ന് നമുക്ക് കുറച്ച് ഹൈ റേഞ്ച് ആയിട്ടുള്ള ഏരിയ വേണം പിന്നെ ഞങ്ങൾ എനിക്ക് ഞങ്ങൾക്ക് ആണെങ്കിൽ റബ്ബറ് വലിയ രീതിയിൽ വീക്ക്നെസ്സ് ആണ് അപ്പം കാരണം ഞങ്ങളുടെ വല്യപ്പച്ചന്മാരൊക്കെ റബ്ബർ കൃഷിയൊക്കെ വലിയ രീതിയിൽ നടത്തിയിട്ടുള്ള ആളാണ് അപ്പം ഞങ്ങളാ ചെറിയ പ്രായത്തിലൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒരു ഓർമ്മയുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞില്ലേ രാജസ്ഥാനിലാണ് ഞാൻ പിന്നെ എൻ്റെ ശിഷ്ഠകാല ജീവിതം ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചിലവഴിച്ചത് അപ്പം ഇപ്പം കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം പല ഇതിലൊക്കെ വാർത്തയിലൊക്കെ കണ്ടു ഞാൻ റബ്ബറിൻ്റെ വിലയൊക്കെ ഇടിഞ്ഞു പല ആൾക്കാരും ഈ റബ്ബർ കൃഷിയൊക്കെ നിർത്തി അപ്പം നമ്മുടെ ഇവിടെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ റബ്ബറൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ എവിടെയാ നമ്മുടെ കേരളത്തിൽ

ഓക്കെ ഓക്കെ ഓക്കെ ആണല്ലേ ആ ഓക്കെ ഓക്കെ

ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ അപ്പം നിവിൻ മതി മതി ആ ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ നിവിൻ അതുപോലെത്തന്നെ നമ്മൾ ഈ റബ്ബറിൻ്റെ അതിൽ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് അതൊക്കെ കാണിക്കാൻ എന്തെങ്കിലും ക്ലാസോ എന്തെങ്കിലും ഒക്കെ അങ്ങനെത്തെ എല്ലാം സെറ്റപ്പ് ഈ സ്ഥലങ്ങളിലെക്കെ റബർ നഴ്സറികൾ ഒക്കെ വല്ലതും ഉണ്ടോ അതിനെക്കുറിച്ച് ഒക്കെ അറിയാമോ ഓക്കെ ഓക്കെ അ റേറ്റ് കൂടും അല്ലേ ഓക്കെ ഓക്കെ റേറ്റ് നമുക്ക് ഭയങ്കര റേറ്റ് കൂടത്തില്ലായിരിക്കും അല്ലേ ആ റേറ്റ് കൂടത്തില്ല ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ അതെയല്ലേ അപ്പോൾ കോട്ടയത്തും പത്തനംതിട്ടയിലെക്കെയാ ഇതിൻ്റെയൊരു മെയിൻ കേന്ദ്രം എന്ന് പറയുന്നത് അല്ലേ ആ ക്ലാസ് ഒക്കെയുണ്ട് ആ അപ്പം അത് എൻ്റെ കുട്ടികൾക്കും ഭാര്യക്കും ഒക്കെ അത് വലിയ ഇൻട്രസ്റ്റിംങ്ങ് ആയിരിക്കും എനിക്കും അതെ അല്ലല്ലാ ഞാൻ ഫാമിലിയായിട്ട് ആയിരിക്കും വരുന്നത് ഫാമിലിയായിട്ട് ആയിരിക്കും വരുന്നത് ഓക്കെ നിങ്ങൾ തന്നെ നേ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ എനിക്ക് നിവിൻ വാട്സാപ്പിൽ അങ്ങ് അയച്ച് തന്നാൽ മതി അതിനെക്കുറിച്ച് ആ എന്തായാലും നമ്മൾ ഇത് ചെയ്യും നമുക്ക് കോട്ടയം പത്തനം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ അപ്പം എന്തായിരുന്നു അപ്പം നമ്മൾ നമ്മൾ കോട്ടയം എന്താ കോട്ടയത്തുനിന്ന് ആയിരിക്കുമോ നമ്മൾ പത്തനംതിട്ടയിൽ ആയിരിക്കുമോ ആദ്യം പോകുന്നത് പത്തനംതിട്ടയായിരിക്കും ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ആ അവിടെ ഇത് കൂടുതൽ ഇതുണ്ട് അല്ലേ റബർ ഉണ്ട് ഓക്കെ ഓക്കെ അങ്ങനെയാണ് നമ്മുടെയൊരു പ്ലാനിങ്ങ് ഡേറ്റ് നമ്മൾ തിരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ രാവിലെ തൊട്ട് ഉച്ചവരെ പത്തനംതിട്ടയും ഉച്ചകഴിഞ്ഞ് പിന്നെയുള്ള സമയങ്ങളിൽ കോട്ടയത്തും അല്ലേ ഓക്കെ ഇനി നിങ്ങളുടെ ടൂറിനും ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഫുഡിൻ്റെ അതിന് നിങ്ങൾ തന്നെ വണ്ടിയൊക്കെ വിട്ടു തരുവായിരിക്കുമല്ലോ അല്ലേ ടാക്സീം ഓക്കെ ഗൈഡിൽ നിവിനും ഉണ്ടായിരിക്കുമല്ലോ അല്ലേ നമ്മുടെ കൂടെ

ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ നിവിൻ ഓക്കെ ഓക്കെ എന്തായാലും നമുക്ക് വരുമ്പം കാണാം ആ ഞാൻ ഈ മാസം ഈ അല്ല ഈ മാസം പോട്ടെ ഈ വ്യാഴാഴ്ച്ച വരും ഞാൻ വ്യാഴാഴ്ച്ച വന്നാൽ നിവിനെ ഞാൻ ബന്ധപ്പെട്ടോളം നമ്മൾ വന്നുകഴിഞ്ഞ് കുറച്ചൊക്കെ ഒന്ന് സെറ്റ്ൽ ആയിട്ട് പിന്നെ നമ്മുടെ യാത്രയിലേക്ക് നമ്മൾ പോകാം അപ്പോൾ ഒരു ആഴ്ച്ച നമ്മൾ കേരളം കാണാം അപ്പം അതിൻ്റെ കൂട്ടത്തിൽ പല യാത്ര ഹൈ റേഞ്ച് റബ്ബർ പ്രൊഡക്ഷൻ അങ്ങനെ പിന്നെ മറ്റു കുറച്ച് സ്ഥലങ്ങൾ ഒക്കെ നമ്മൾ പോവാനുണ്ട് അപ്പം പിന്നെ എന്നാൽ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും വന്നേക്കാം ഉറപ്പായിട്ടും വന്നേക്കാം ഓക്കെ എന്നാൽ ഓക്കെ എന്നാൽ കോൺടാക്റ്റ് ചെയ്തോളാം കോൺടാക്റ്റ് ചെയ്തേക്കാം